എൻ്റെ ജനനസമയത്ത് സാങ്കേതിക വിദ്യകൾ അത്രയും മികച്ചതായിരുന്നില്ല പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മൊബൈൽഫോൺ അഥവാ സ്മാർട്ഫോണ് ഞാൻ എന്റെ ജനനകാലത്തും എൻ്റെ ഒരു പത്തുവയസ് വരേയും ഒട്ടുമിക്ക എല്ലാപേരും കീപാഡ് ഫോണുകളാണ് യൂസ് ചെയ്തിരുന്നത് സ്വിച്ചുകളുള്ള അമർത്തുന്ന അമർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഫോണുകൾ അന്നവർക്കാർക്കും ക്യാമറയെ കുറിച്ചോ അതിന്റെ സ്പെഷ്യലിറ്റിസിനെക്കുറിച്ചോ അതിന്റെ വൈവിധ്യങ്ങളെക്കുറിച്ചോ ആർക്കും അറിവുണ്ടായിരുന്നില്ല എന്നാൽ സാങ്കേതിക വിദ്യകൾ വളരുന്നതനുസരിച്ച് മൊബൈൽ ഫോണുകളിൽ മാറ്റം വന്നു ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ അനുസരിച്ച് എല്ലാം കൈത്തുമ്പിൽ കിട്ടും ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് കിട്ടാൻ പറ്റാത്തതായ് ഒന്നുമില്ല എന്റെ ജോലി സാധ്യതകളിലും ഈ സാങ്കേതിക വിതിക സാങ്കേതിക വിദ്യ എന്നെ പരമാവധി സഹായിച്ചിട്ടുണ്ട് എന്റെ അറിവുകൾ നേടാനും എനിക്ക് മറ്റുള്ളോരാളായിട്ട് സംഭാഷണം ചെയ്യാനും എത്രയും പെട്ടെന്ന് ഒരുപാട് ദൂരം അകലെയുള്ള ഒരാളെ നേർമുന്നിൽ കാണുന്ന തരത്തിൽ വീഡിയോകാൾ എന്ന സംവിധാനം വരേയും ഇന്നത്തെ കാലത്ത് എത്തിയിരിക്കുന്നു